കൊറോണ പോസിറ്റീവാണോ ടെസ്റ്റ് ചെയ്തിട്ട് എപ്പഴാണ് ടെസ്റ്റ് ചെയ്തത് ആണ് ആണല്ലേ വേറെ എന്തൊക്കെയാണ് അസ്വസ്ഥതകൾ ഉള്ളത് അ അ അ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ജലദോഷത്തിൻ്റെ ചില സമയം പോസിറ്റീവായിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോ നിങ്ങള് എന്തുചെയ്യാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് എന്ന് വന്ന സ്ഥിതിക്ക് വേറെ ആരും വേറെ വീട്ടിലേക്കൊന്നും പോകരുത് കുറച്ച് അഞ്ച് ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കാം അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്ത് പോയാൽ മതി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് പ്രായം ഉള്ളതാണോ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അ അ അവരുടെ അടുത്ത് പോകുമ്പോൾ എന്തായാലും മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കണം അതുപോലെ തന്നെ മോന് ചെറുതാണോ മോൻ എട്ട് മാസം അല്ലേ ഓക്കെ മോൻ പാൽ കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തേക്ക് നിങ്ങൾ വേറെന്തെങ്കിലും കുറുക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം മോൻ്റെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ പിന്നെ ഇപ്പോഴും നന്നായിട്ട് കയ്യൊക്കെ കഴുകിയതിന് മാത്രം കഴുകിയതിന് ശേഷം മാത്രം മോനെ പരിപാലിക്കുക പിന്നെ പാരസിറ്റമോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ അ രണ്ട് വാക്സിനും എടുത്തായിരുന്നോ അപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്തായാലും മരുന്നും കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാറിക്കോളും ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യുക ഓക്കേ